നീന്തൽ പഠിക്കാൻ തുടങ്ങുന്ന ഒരാൾക്ക് ആദ്യമായിട്ട് എനിക്ക് കൊടുക്കാനുള്ള ഒരു ഉദേ ഉപദേശമെന്ന് പറയുന്നത് നീന്തലറിയാവുന്ന ഒരു വ്യക്തിയുടെ കൂടെ നല്ലോണം പരിശീലിച്ച ഒരു വ്യക്തിയുടെ കൂടെ പോയി പഠിക്കണമെന്നുള്ളതാണ് ആദ്യം എന്താണ് ആദ്യം പോയി അവരെ കണ്ട് അവരോട് സഹായം ചോദിക്കണം പഠിക്കാൻ പഠിപ്പിക്കാൻ സഹായിക്കുമോ എന്ന് ചോദിച്ചിട്ട് അവരുടെ ശിക്ഷണത്തിൽ പഠി പഠിക്കണമെന്നാണ് നീന്തലെന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ച ഒരു പരിപാടിയാണ് നീന്തല് പഠിക്കുക എന്ന് പറയുന്നതും പഠിപ്പിക്കുക എന്ന് പറയുന്നതും വളരെയേറെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ആദ്യം തന്നെ നമുക്കൊരിക്കലും നല്ല രീതിയിൽ നീന്തിപ്പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ പട അടിച്ച് പഠിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ട് ഒരാഴ്ച് പടയടിച്ചിട്ട് അതായത് പടയിൽ കൈകുത്തി കാലടിച്ച് പഠിക്കുക ആദ്യം തന്നെ സഹായങ്ങളൊന്നും ഇല്ലാണ്ട് നീന്താൻ പാടുള്ളതല്ല പഠിപ്പിക്കുന്ന ടൈ പഠിപ്പിക്കുന്ന സമയത്ത് ഈ തൊണ്ടോ തൊണ്ടോ അതോ അല്ലങ്കില് വണ്ടികളുടെ ട്യൂബൊ ഉപയോഗിച്ചിട്ട് വേണം പഠിക്കാൻ അ അല്ലങ്കിൽ മുങ്ങിപോകാനും അപകടം വരാനും ഒരുപാട് സാധ്യത ഉണ്ട് അതേപോലെ തന്നെ അത് അങ്ങനെ ഒര് അങ്ങനെ പഠിക്കുന്നതായിരിക്കും ആദ്യം തന്നെ ഒരാഴ്ച് കാലടിച്ച് പഠിക്കുക കാല് വെള്ളത്തിൽ ഇട്ട് പടയിൽ കൈവച്ച് കാല് വെള്ളത്തിലിട്ടടിച്ച് പഠിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ആ അതേപോലെ പരിശീലിപ്പിക്കുന്ന വ്യക്തി എപ്പോഴും ഒരു സഹായത്തിന് കൂടെ തന്നെ ഉണ്ടാകണം അവരെ അങ്ങ് തള്ളി വിട്ടിട്ട് പോകുക മാത്രല്ല അവരെ കൂടെ തന്നെ നീന്താനും ശ്രമിക്കേണ്ടതാണ് അതാണ് എനിക്ക് നൽകാനുള്ള ഉദെ ഉപദേശം അതായത് നീന്തൽ പഠിക്കാൻ പോകുന്ന ഓരോ ആൾക്കാർക്കും എനിക്ക് കൊടുക്കാനുള്ള ഉപദേശം നീന്തൽ പഠിക്കുക എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് ഏത് ആപത്ത്ഘട്ടത്തിലും നമുക്ക് ഉപകരിക്കുന്ന ഒന്നാണ് നീന്തൽ പഠനം എന്ന് പറയുന്നത് ഏത് ആപത്തിലും നമുക്ക് രക്ഷപെടാൻ പറ്റും ഏത് ആപത്തിലും എന്നല്ല ചില ആപത്ത് എപ്പഴാണ് ആപത്ത് വരാൻ പറ്റുകെയെന്ന് പറയാൻ പറ്റില്ല ഇപ്പം രണ്ടായിരത്തി പതിനെട്ട് പ്രളയം വന്നത് പോലെ ഒരു സംഭവത്തിൽ നമുക്ക് ഇങ്ങനെ ഉള്ള ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചാൽ അതുവളരെ ഗുണമാണ് നമ്മുടെ ഒരു ജീവൻ സംരക്ഷിക്കാൻ തന്നെ ഗുണമുള്ളൊരു പരിപാടി തന്നെയാണ് നീന്തൽ എന്ന് പറയുന്നത്